ഇപ്പോൾ മത്സ്യബന്ധന യാത്രകൾ തയ്യാറെടുക്കണതെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ വലയും അതുപോലത്തെയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ മുൻകൂട്ടി കണ് എടുത്തു വെക്കണം കാരണം നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകാണ് അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും ഫിഷിങ്ങിന് ആവശ്യമായിട്ടുള്ള വല അതുപോലെ തന്നെ കത്രിക എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ മീനുകളെ വല മുറിച്ച് ഇതാക്കണമെങ്കിൽ അങ്ങനെ വല നൂല് സൂചി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വല എന്തെങ്കിലും പെട്ടെന്ന് ഇതാകുകയാണെങ്കിൽ അതുപോലെ തന്നെ മഴ റെയിൻ കോട്ട് അങ്ങനെ തൊപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെക്കണം പിന്നെ നമ്മൾ വെട്ടം എടുത്ത് പിന്നെ ലൈറ്റ് അങ്ങനെ ലൈറ്റ് സൗജര്യ സൗകര്യമുള്ളതിന് ടോർച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കണം രാത്രി കാലങ്ങളിലാണെങ്കിൽ നമ്മൾ കായലുകളിലൊക്കെ പോകുമ്പം കൂടയൊക്കെ കൊണ്ടുപോകണം കാരണം ഈ മീനിനെ പിടിച്ച് നമ്മൾ കൂടയിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ കായലിലെ അല്ല കായലിൽ അല്ലാണ്ട് നമ്മൾ ബോട്ടിങ്ങിന് ബോട്ടായിട്ട് എടുത്തിട്ട് പോകുന്നത് എങ്കിൽ അപ്പം ഒരു ഒരു പത്ത് പത്ത് ഇരുപത് ആൾക്കാർക്കും ആ ബോട്ടിങ്ങിൽ അപ്പോൾ നമ്മൾ അതേപോലെയുള്ള സൗകര്യങ്ങൾ കൊണ്ടുപോകണം എന്താ പറയുക മീനെ കൊണ്ടുവരാൻ ഉള്ളതും അതുപോലെതന്നെ എന്താ പറയുക മീനിനെ സുരക്ഷിതമായിട്ട് എന്താ പറയുക വൃത്തിയുള്ള നല്ല മീനുകൾ തിരഞ്ഞെടുത്ത് കൊണ്ട് വരാനുള്ള സൗകര്യങ്ങൾ നമ്മൾ കൊണ്ടുവരാറുണ്ട്